ഞാൻ ഇവിടെ പോസിറ്റീവ് പറയാൻ എടുത്തിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച എൻ്റെ ഹാൻ്റ്ബാഗിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് വാങ്ങിച്ചതുകൊണ്ടുതന്നെ അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു അത് എൻ്റെ ഫേവറേറ്റ് കളറിൽ ഉള്ള സാധനം തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് ചങ്ങനാശ്ശേരിയിലെ ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ പ്രതീഷിച്ച റേറ്റിലും കുറച്ച് അവർ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ആദ്യമായിട്ട് വാങ്ങിച്ച ബാഗാണല്ലോ നമുക്കൊരുപാട് ഒരു ഒരുപാട് പെട്ടെന്ന് പോവരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കാരണം എനിക്ക് എവിടെ പോകണമെങ്കിലും എൻ്റെ കയ്യിൽ കുട വേണം കുപ്പി വേണം അപ്പോൾ ഇതൊക്കെ കയ്യിൽപ്പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് പാടാണ് അപ്പോൾ ഞാൻ വലിയ ബാഗ് കൊണ്ടാണ് പോയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഹാൻ്റ്ബാഗ് ഉള്ളതുകൊണ്ട് അത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു എണ്ണൂറ് എണ്ണൂറ്റി അൻപത് റേറ്റിൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു വണ്ണിയർ വാറണ്ടി ഉണ്ടായിരുന്നു നല്ല സംഭവമായിരുന്നു പിന്നെ പക്ഷെ അയിന് പെട്ടെന്ന് കേട് ഒന്നും വന്നിട്ടില്ല പിന്നേ വാട്ടർപ്രൂഫ് ആയിരുന്നു ലെതർ ബാഗ് ആയിരുന്നു അത് അത് കൊണ്ടുതന്നെ നല്ല രസമായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ബാഗ് ആയിരുന്നു അത്